ചിത്രം വരച്ചത് തുടങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ള ഉപദേശം എന്ന് പറയാനുള്ളത് എന്നും അതൊരു തുടക്കം മാത്രമാണ് തുടങ്ങുബോൾ അത്രയ്ക്ക് വൃത്തി ആയിക്കോണം നിങ്ങൾ വരയ്ക്കുന്നത് എല്ലാം എല്ലാവരും വലിയ ചിത്രകാരൻ വരയ്ക്കുന്നത് പോലെ അത്രയ്ക്ക് ഭംഗിയാവണം എന്നൊന്നും ഇല്ല നിങ്ങൾ ഒരു പോട്ട് വരച്ചാൽ പോലും അത് അത്രയ്ക്ക് ആ ഒരു ഷേപ്പില് കിട്ടി എന്ന് പോലും വരത്തില്ല പക്ഷേ നിങ്ങളുടേതായ പരിശ്രമവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുപോലെ മുന്നോട്ടു പോകുവാൻ സാധിക്കുകയുള്ളു നിങ്ങളുടെ അതിയായ പരിശ്രമവും വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇനിയും ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുള്ള കഠിനാധ്വാനവും പരിശ്രമവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ എത്താൻ പറ്റത്തൊള്ളൂ പിന്നെ ആ ആദ്യത്തെ ഒരവസരത്തിൽ തോറ്റുപോയി എന്ന് വിചാരിച്ച് അതിൽ നിന്നും പിന്മാറി പോകാതെ വീണ്ടും അതിൽ പരിശ്രമിച്ച് മുന്നോട്ടുപോയി അതിൽ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഒരെണ്ണത്തിൽ തോറ്റു എന്ന് വിചാരിച്ച് ഞാൻ തോറ്റു എന്ന് വിച വിചാരിച്ച് വഷമിച്ചിരിക്കുകയല്ല പിന്മാറുകയല്ല ചെയ്യേണ്ടത് വീണ്ടും ശ്രമിച്ച് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നേടുന്നതുവരെ പരിശ്രമിക്കുക എന്നത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്